ഹലോ ഹലോ സുരഭി ആണോ സംസാരിക്കുന്നത് ആ എൻ്റെ പേര് നിർമല എന്നാണ് നമ്മൾ കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത് നിങ്ങൾ പൂവിൻ്റെ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ടല്ലെ ആ എൻ്റെ വീട്ടിൽ ഒരു ഫംങ്ഷൻ ഉണ്ടായിരുന്നു കല്യാണമാണ് ആഹ് അപ്പോൾ എനിക്ക് സ്റ്റേജ് ഡെക്കറേഷൻ അതിൻ്റെ വില എല്ലാം എങ്ങനെ വരുമെന്ന് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് ആ ആ സ്റ്റേജ് മാത്രമല്ല മേഡം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ ഇങ്ങനെ ഫ്രണ്ടിൽ പിന്നെ ഇങ്ങനെ നമ്മൾ പന്തലെല്ലാം ഇല്ലെ ആ അതിനെല്ലാം വേണം പിന്നെ നമ്മളെ പൂജാമുറിയിൽ ഇങ്ങനെ അവിടെല്ലാം ഡെക്കറേഷൻ വേണം പൂ മാത്രമല്ല എന്നു പറഞ്ഞാൽ ലൈറ്റിംഗ്സും വേണം അതിൻ്റെ എല്ലാം നിങ്ങളേ കൈയിൽ സെറ്റപ്പ് ഉണ്ടല്ലോ ഉണ്ടല്ലേ ആ അതിന് എത്ര റേറ്റ് വരും ആ ഇപ്പോൾ ഒരു നമുക്ക് കൂടുതൽ പറഞ്ഞാൽ മല്ലിപ്പൂ വച്ചിട്ടാണ് ചെയ്യാമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മല്ലിപ്പൂവും ജമന്തിയും അങ്ങനെയാണ് ആ അപ്പോൾ റോസ് അതിനെല്ലാം എങ്ങനെയാണ് വില റേറ്റ് എങ്ങനെയാണ്

എങ്ങനെ ഒന്നിന് ഒരു പീസിന് അങ്ങനെയാണോ നിങ്ങളത് ആ ആ ആ ആ ആ ആ ആ

റേറ്റ് തൗസൻഡ് അങ്ങനെ ഒരു ബൊക്കെ അങ്ങനെ അല്ലേ അപ്പോൾ ഈ മല്ലിയുടെ മല്ലിയുടെ ഇങ്ങനെ ചെണ്ട് ആ രീതിയിലാണോ അതെ അല്ലേ അപ്പോൾ ടോട്ടൽ ഒരു എത്ര വരും ഞങ്ങളെ ഈ മൂന്ന് സ്ഥലം പറഞ്ഞല്ലോ പൂജാമുറി പന്തൽ നമ്മളെ ഇങ്ങനെ ഫ്രണ്ടിൽ കയറുന്നിടത്ത് ഇങ്ങനെ പിന്നെ നമ്മളെ ഇത് പൂജാമുറി പറഞ്ഞല്ലോ സ്റ്റേജ് ഇതിനെല്ലാം ഒരു റേറ്റ് ടോട്ടൽ റേറ്റ് എത്ര വരും അത്ര ഈ മല്ലിപ്പൂ അതിനു മാത്രം അത്ര ആണോ എല്ലാം കൂടെ ലൈറ്റിംഗ്സ് എല്ലാം കൂടിയിട്ടല്ലേ ആ അതെ അല്ലേ അപ്പോൾ നമുക്ക് ഇതിൽ ആ കുറച്ച് ഡിസ്കൗണ്ട്സ് എല്ലാം കിട്ടുമോ

ആ ഓക്കേ അപ്പോൾ എന്നാൽ ഒരു ഒരു ത്രീക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഞങ്ങൾക്ക് ഓക്കെ ആണ് ആ ത്രീക്ക് ചെയ്യാം അല്ലേ ഓക്കെ ഓക്കെ ശരി താങ്ക് യു